ഈ സഹകരണ സ്ഥാപനങ്ങളൊക്കെ കാർഷിക മേഖലയുമായി എങ്ങനെ നന്നായിരിക്കുമെന്നുണ്ട് കർഷകർക്കൊരു കറക്റ്റൊരു പൈസയും കാര്യങ്ങളൊക്കെ ഈ സഹരണ സാപനങ്ങൾ വഴി കിട്ടും പക്ഷെ ഇപ്പം കൃഷിക്കാവശ്യമായ സാധനങ്ങൾ വളം വിത്ത് അങ്ങനത്തെയിത് പിന്നെ ട്രാക്ടറ് ടില്ലറ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളും കിട്ടും അതേപോലെ ഇപ്പോൾ സാധനം കൃഷി ചെയ്തിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഈ സഹകരണ സ്ഥാപനത്തിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അവരത് വിറ്റ് അവർക്കൊരു കർഷകർക്കാവിശ്യമായുള്ളൊരു പൈസ അതെടുത്ത് കൊടുക്കും അങ്ങനെ കുറേ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് കർഷകർക്ക് നല്ലൊരു ഹെൽപ്പറാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ എന്നൊക്ക പറയുന്നത് ഇപ്പോൾ ഒക്കെ കൃഷിക്കാവിശ്യമായുള്ള വളം പിന്നെ കൃഷി ചെയ്യാനുള്ള വിത്തുകൾ വിത്ത് പിന്നെ തൈകൾ ഇതൊക്കെ ഈ കർഷക സ്ഥാപനങ്ങൾ വഴി കൊടുക്കും ഇതെന്തൊക്കെ പറയുമ്പോൾ അവർക്ക് നല്ല യൂസ്ഫുള്ളാണ് കർഷകർക്കും എളുപ്പമാണ് അതുപോലെ ഇത് സാധനങ്ങൾ വിറ്റ് അവിടെ തിരിച്ച് കൊണ്ടുക്കൊടുക്കുകയാണെങ്കിൽ അവർക്കതിന് നല്ല ഒരു അർഹിക്കുന്നൊരു തുക അവർക്കത് കിട്ടുകയും ചെയ്യും